ഹലോ ആ ആ ഹാ മാം എന്താണ് ആ ഓക്കെ ആ ചിക്കൻ നൂഡിൽസുണ്ട് കുഴിമന്തിയുണ്ട് കേ എഫ് സിയുണ്ട് മാമിനേതാണ് വേണ്ടത് അ കുഴിമന്തി ഓക്കേ ഡെസേട്ട് ചോറുണ്ട് പിന്നതിൻ്റെ കൂടെ വെജിറ്റേറിയനാണോ അതോ നോൺ വെജ്ജാണോ മാം കഴിക്കുന്നത് കറീ സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് ചോറിന് പച്ചടി കിച്ചടി ആ ആ ഫിഷ്ഷുണ്ട് ആ പിന്നെ ആ കുടിക്കാൻ ആ ഫിഷ് ആ കരിമീനുണ്ട് പിന്നെ ആവോലിയുണ്ട് നത്തോലി ഫ്രൈയുണ്ട് ആ ആ ആ ഫിഷ് ഓക്കെ മീൻ കുടിക്കാൻ ഐസ് ക്രീം ഓക്കെ ഏത് ഏത് ഫ്ലേവറാണ് ബട്ടർസ്കോച്ചുണ്ട് വാനിലയുണ്ട് സ്ട്രോബറിയുണ്ട് ആ ആ ആ ആ ഓ ബട്ടർ ബട്ടർസ്കോച്ച് വാനിലയും പിന്നെ കുടിക്കാൻ കുടിക്കാൻ ജൂസുണ്ട് ആ ഓക്കെ പൈനാപ്പിൾ ജ്യൂസ് എല്ലാം ഒരാൾക്ക് മതിയോ മാടം ഒരാൾക്കാണോ ആ പിന്നെ സാലഡ് ഐറ്റംസ് അങ്ങനെയെന്തെങ്കിലും പ്രത്യേകിച്ചു വേണോ ആ അച്ചാറോ ചോറിനു അച്ചാറോ ആ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇഞ്ചി അച്ചാർ പിന്നെ പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും വേണോ പൊറോട്ട ഇങ്ങനെയപ്പം ചപ്പാത്തി കുറുമ അങ്ങനെയെന്തേ അങ്ങനെയൊക്കെയുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും വേണോ പൊറോട്ടയുടെ കൂട്ടത്തിൽ ബീഫ് ഫ്രൈയുണ്ട് ആ ചപ്പാത്തി കുറുമ അപ്പം ആ മുട്ടക്കറി എ അപ്പവും മുട്ടക്കറിയും അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസുമുണ്ട് ഓ ആ അ ഓക്കേ മൂന്നു പേർക്കുള്ളത് മൂന്നുപേർക്കുള്ളത് അപ്പോൾ ഐസ് ക്രീം അങ്ങനത് ആ ഒരാൾക്കു മാത്രം മതിയോ ആ റേയ്റ്റ് ഒരാൾക്കുള്ളത് അപ്പവും ഏ ഏതിൻ്റെയാണ് റേയ്റ്ററിയണ്ടേ ആ പൊറോട്ടയുണ്ട് സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ആണോ റേയ്റ്ററിയണ്ടേ ചിക്കൻ ഉം ഏതിൻ്റെയൊക്കെയാണ് ആ കുഴിമന്തി ആ കുഴിമന്തി നൂറ്റിത്തൊണ്ണൂറ് ആറ് അ ചിക്കൻ നൂഡിൽസ് നൂറ്റി അൻപത് ആ പിന്നെ ഏതാണ് മാം ആ ഇത് പൊറോട്ടയും ചിക്കനുമാണെങ്കിൽ ഇരുന്നൂറ് ആ അ ഐസ് ക്രീം ഒരാൾക്കുള്ളതാണെങ്കിൽ തൊണ്ണൂറ് ലൈം ജ്യൂസ് എന്തെങ്കിലും വേണോ ലൈം ജ്യൂസെന്തെങ്കിലും ആ ആ ഓക്കെ ഓക്കേ ഓക്കേ ആ ആ അരമണിക്കൂറിനകത്ത് ഓക്കേ മാം ഓക്കേ ഓക്കേ ഓക്കെ